ആ പറയൂ ഇതാരാണ് സംസാരിക്കുന്നത് അതെ പറയൂ മാഡം ഞങ്ങളുടെ എല്ലാ പ്രോഡക്റ്റും എല്ലാ ഉൽപ്പന്നങ്ങളും നല്ല ഫ്രഷ് പ്രൊഡക്റ്റുകളാണ് അതുകൊണ്ടുതന്നെ എല്ലാ പ്രായത്തിൽ വരുന്നവർക്കും ഇത് ഒരു പേടിയും കൂടാതെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു മായവും കലരാത്ത പ്രോഡക്റ്റുകളാണ് അതിൽ നിന്ന് ഏതാണ് നല്ലതെന്ന് ചോദിച്ചാൽ പല പ്രായത്തിലുള്ളവർക്കും പലതുമാണ് ഇഷ്ടം ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഐസ്ക്രീമുകളും ഞങ്ങളുടെ ഗുലാബ് ജാമുൻ പ്രൊഡക്റ്റ് ഉല്പന്നങ്ങൾ എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട് അത് തന്നെ ഞങ്ങൾക്കൊരു ദിവസം നല്ല രീതിയിൽ കച്ചവടവും പോകുന്നുണ്ട് അത് കൂടാതെ വീട്ടിലെ അമ്മമാർക്ക് ആണെങ്കിലും കുട്ടികൾക്ക് ബട്ടർ എന്ന് പറഞ്ഞ സാധനം നല്ല ഇഷ്ടമാണല്ലോ അതുകൊണ്ട് തന്നെ അതും നല്ല രീതിയിൽ വിറ്റ് പോകുന്നുണ്ട് അമ്മമാർ എന്താണ് പറയുക വിശ്വസ്തതയോട് കൂടെ വാങ്ങുന്ന ഒരു ഉൽപ്പന്നമാണ് ഞങ്ങളുടേത് കാരണം അവർക്ക് ബോധ്യമുണ്ട് നല്ല ഒരു മായവും കലരാതെ ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്നുള്ള ബോധ്യം നല്ല രീതിയിലുണ്ട് ഇപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ എൻ്റെ എൻ്റെ ഡയറി ഫാമിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഞാൻ നല്ലതാണെന്നേ പറയുള്ളൂ അതുകൊണ്ടുതന്നെ ഞാൻ പറയുന്നത് എൻ്റെ ഡയറി ഫാമിലെ ഐസ്ക്രീം ആയാലും ഗുലാബ് ജാമുനായാലും ബട്ടർ ആയാലും പാലായാലും എല്ലാം നല്ല പ്രൊഡക്റ്റുകളാണ് നിങ്ങൾക്കേതാണ് വേണ്ടത് ഉറപ്പായും ഉറപ്പായും കുഴപ്പമൊന്നുമില്ല എല്ലാ ഫ്ലേവറും ഉണ്ട് ഏത് ഫ്ലേവർ ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്ന് പറഞ്ഞാൽ ഞങ്ങളത് അതനുസരിച്ച് സപ്ലൈ ചെയ്യുന്നതായിരിക്കും ഉറപ്പായും

ഈ നെക്സ്റ്റ് മന്ത് തൊട്ടുള്ള ഒരു എഗ്രിമെൻറ്റ് നമുക്ക് ഇതിനുള്ളിൽ ഉണ്ടാക്കേണ്ടതാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ മാനുഫാക്ച്ചറിംഗ് ഡേറ്റ് തൊട്ട് ഒരു മാസം വരെ പ്രൊഡക്റ്റിൻ്റെ കാലാവധി നീണ്ട് നിൽക്കുന്നതായിരിക്കും അപ്പോൾ എന്ന് തൊട്ടാണ് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കടയിലേക്ക് വേണ്ടത് എന്ന് വെച്ചാൽ അതിന് ഒരു എഗ്രിമെൻറ്റ് നമുക്ക് ഉണ്ടാക്കേണ്ടതാണ് അപ്പോൾ എഗ്രിമെൻറ്റ്സിനായിട്ട് ഉറപ്പായും തീർച്ചയായും ശരി